ഞങ്ങളുടെ പ്രദേശത്ത് രാഷ്ട്രീയ പരമായിട്ട് രണ്ട് നേതാക്കൾ പ്രധാനമായിട്ടുമുണ്ട് ഒന്ന് കോൺഗ്രസ്സ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്ലിസ്റ്റ് പാർട്ടി നേതാവ് വി എൻ വാസവനും ഈ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് വളരെ ആത്മാർഥമായ രീതിയിലിടപെട്ട് നമ്മുടെ ഏത് കാര്യങ്ങളിലും മുൻപേ നിന്നവർ പ്ര പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അവരുടെ അജണ്ടയെന്ന് പറഞ്ഞാൽ അവർ നമ്മളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അജണ്ട ഇപ്പം നമ്മുടെ എല്ലാ കാര്യവും ഓടി ചെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ലായിരിക്കും എങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ അവർ നമ്മളെ വളരെയധികം സഹായിക്കുകയും നമ്മളവരെ വളരെ ബഹുമാനപൂർവ്വം ആദരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചപ്പാട് നിലവിൽ നമുക്കുണ്ട്